മുഴുത്ത ചരലും പിന്നെ നദീതീരത്തിലുള്ള കല്ലുകളൊക്കെ നമുക്ക് കലാവസ്തുക്കളായി ഉപയോഗിക്കപ്പെടുത്തുകയൊക്കെ അതിനുവേണ്ടിയുള്ള ഒരു സംഭവമൊക്കെ നമ്മുടെ ഈ നമുക്ക് അത് കടകളിൽ നിന്ന് വാങ്ങിക്കാൻവരെ കിട്ടുന്ന ഒരു രീതിയിലേക്കൊക്കെ ഉണ്ടത് പിന്നെയെന്നു വച്ചാൽ ഈ പ്രതിമകൾ കല്ലുകൊണ്ടുള്ള സിമെൻ്റ് വച്ച് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന രീതികൾക്കൊക്കെ നമുക്കത് പറ്റുകയൊക്കെ ചെയ്യും അധികം ബുദ്ധിമുട്ടില്ലാണ്ടും അത് ആ ഒരു വർക്ക് നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റുകയും നല്ല ഫിനിഷിങ്ങോടെ നമുക്ക് ആ വർക്കിനെ പാകപ്പെടുത്തിയെടുക്കാനൊക്കെ ഒരു സംവിധാനം നമുക്ക് ചെയ്യാം അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് മേടിക്കാനും പറ്റുകയൊക്കെ ചെയ്യും പിന്നെയെന്നു വച്ചാൽ വലിയ ബുദ്ധിമുട്ട് ഇതിനങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും വരാറില്ല ഇപ്പോൾ നമുക്ക് ഒരു സാധനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ തന്നെയാണെങ്കിൽ മൺകുടമോ അല്ലെങ്കിൽ ഈ സിമെൻ്റുകൊണ്ടുള്ള പ്രതിമ അങ്ങനെയൊക്കെ ഉള്ള നമുക്ക് അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തി എടുക്കാൻവേണ്ടി നമുക്ക് വലിയ താമസമൊന്നും വരില്ല